ഹലോ സാർ നമസ്കാരം എൻ്റെ പേര് പ്രവീൺ ഞങ്ങൾ കുടുംബത്തോട് കൂടി നമ്മുടെ ഈ മലപ്പുറത്ത് നമ്മളെ പ്രസിദ്ധമായുള്ള കക്കാടംപൊയിലിലേക്കൊരു ഫൈവ് ഡേയ്സ് ടൂർ പോകാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ പാക്കേജ് ഏറ്റെടുക്കുന്ന ആളാണെന്ന് ഒരു വിവരം കിട്ടി പ്രണവ് എന്നല്ലേ നിങ്ങളുടെ പേര്

അത് ഞങ്ങൾ ആ ഞങ്ങളൊരു ആറ് പേരുണ്ട് ഞങ്ങൾക്കൊരു ആറ് ദിവസത്തെ ട്രിപ്പ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫൈവ് സിക്സ് ഡേയ്സ് ഏ ഉദ്ദേശിക്കുന്നത് ഉം ആറ് ദിവസത്ത ഞങ്ങൾ ആറ് പേരുണ്ടാവും നമുക്ക് ആറ് ദിവസമാണ് വേണ്ടത് ആ നമ്മുടെ പ്ലേസ് കരുവാരക്കുണ്ട് ഉം കരുവാരക്കുണ്ട് ആ ഒരാൾക്ക് മൂവായിരം രൂപയ്ക്ക് ആ അപ്പം ആറ് പേർക്കാവുമ്പോൾ ഓരോരുത്തർ മൂവായിരം രൂപ വെച്ച് എടുക്കണം

വേറെ പിന്നെ ഇല്ലേ നമ്മൾ പാക്കേജിൽ ഡീസൻറ് ആണ് ഇതുപോലെ ഡിസ്കൗണ്ട് ഉണ്ടോ എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ

ആ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളെ പ്ലാനുകൾ കാര്യങ്ങൾ വരുന്നത് വേണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ കക്കാടംപൊയിൽ അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലേസസ് കാര്യങ്ങൾ ഉണ്ടോ പ്ലേസ് നിങ്ങൾ ചെയ്യുന്നത് ആ ആ ആ ആ ആ അവിടേക്ക് ഡിസ്കൗണ്ട് സെയിം ആണോ സെയിം ഡിസ്കൗണ്ട് തന്നെ ആണോ ആ ആ ആ ആ എന്നാൽ ഓക്കെ സാറേ ഏതായാലും ഞങ്ങൾ നിങ്ങളെ അടുത്തേക്ക് അടുത്ത ദിവസം വരെ ഇറങ്ങാം അങ്ങോട്ട് ആ ഓക്കെ ഓക്കെ സാർ ഓക്കെ